മലയാള ഭാഷ നമ്മുടെ മാതൃ ഭാഷയാണ് മലയാളം ആ ഭാഷയെ നമ്മളൊരു കാലവും മറന്നുപോകരുത് ജനിച്ച മണ്ണിനെ നാം മറക്കാൻ പാടില്ല നമ്മുടെ ഭാഷ നമ്മൾ സ്വായത്തമാക്കുക അനുദിനം നമ്മള് നമ്മുടെ വീടുകളില് എല്ലാ ദിവസവും ഏതെല്ലാം നമ്മള് എത്രയെല്ലാം ഉന്നതനിലയിലെത്തിയാലും നമ്മുടെ ഭാഷ മറന്നുപോകുന്ന ഒരു സംസ്കാരം നമ്മുടെ നാട്ടിലുണ്ട് നമ്മള് നമ്മുടെ ഭാഷയെ നമ്മുടെ എന്നാ ഏത് ഭാഷയാണ് നമ്മൾ ഏത് നാട്ടിലാണോ ജനിച്ച് വളർന്നത് ആ നാട്ടിലെ ഭാഷ നമ്മളെന്നും കൃത്യസ്ഥമാക്കണം എഴുതാനും വായിക്കാനും എന്നും നല്ല പ്രാവീണ നമ്മൾ നമ്മുടെ ഭാഷയിൽ നമ്മളുടെ കുഞ്ഞുങ്ങളെ നമ്മള് എത്ര വലിയ ഉന്നത നിലവാരത്തിൽ എത്തിയാലും നമ്മള് പഠിച്ച ഭാഷ മറക്കാതിരിക്കാൻ കുഞ്ഞുങ്ങളെ പത്രം വായിക്കാനും ടി വി കാണാനും വാർത്ത കേൾക്കാനും മലയാളത്തിലെ പ്രസംഗം പറയാനും കഥകൾ വായിക്കാനും കവിത വായിക്കാനും മലയാളത്തിലെ സിനിമകൾ കാണിക്കാനും കുഞ്ഞുങ്ങളെ നമ്മൾ കൊണ്ടുപോകണം നമ്മുടെ ഭാഷ നമ്മളൊരു കാലത്തും നമ്മള് പെറ്റമ്മയെ മറക്കാൻ പാടില്ല പെറ്റമ്മ നമ്മുടെ എല്ലാമെല്ലാം ആണ് അതുപോലെ നമ്മുടെ പെറ്റമ്മയെ നമ്മള് മറക്കുന്ന നമ്മള് വലിയൊരു നന്ദികേടാണ് കാണിക്കുന്നത് അതുകൊണ്ട് നമ്മള് മലയാള ഭാഷയുടെ വികസനത്തിനുവേണ്ടി നമ്മൾ നമ്മാൽ ആവുന്നതെല്ലാം ചെയ്യണം പറ്റുന്ന പോസ്റ്ററുകളും പേ കാർഡുകളും നോട്ടീസുകളും ഒക്കെ നമ്മള് തയ്യാറാക്കണം എന്ത് നമ്മുടെ വീട്ടില് എന്ത് വിശേഷ ദിവസം വന്നാലും നമ്മുടെ മക്കളെ കൊണ്ട് നമ്മള് അതിനുവേണ്ട കാർഡുകള് ആശംസ കാർഡുകള് നോട്ടീസുകള് ധാരാളം കാര്യങ്ങള് കുഞ്ഞുങ്ങളെ കൊണ്ട് തയ്യാറാക്കിക്കുക അത് നമ്മളതിന് മുൻകൈ എടുക്കുക നമ്മുടെ മക്കളുതന്നെ അങ്ങനെ തയ്യാറാക്കട്ടെ ഒരുദിവസം ഉറങ്ങുന്നതിന് മുമ്പ് നമ്മള് നമ്മുടെ വീട്ടിൽ വിശുദ്ധ ഗ്രന്ഥമുണ്ട് അത് ബൈബിൾ ആണ് ആ കുഞ്ഞുങ്ങളെ ബൈബിളിലെ മലയാളത്തിലെ മലയാളം ബൈബിൾ തന്നെ നമ്മുടെ വീട്ടിൽ വായിച്ച് അപ്പോൾ ദിനവും ദിനവും നമ്മള് മലയാളം ബൈബിൾ വായിക്കുമ്പോൾ നമ്മുടെ ഭാഷ നമ്മള് മറന്നുപോകാതിരിക്കും അനുദിനം നമ്മള് മലയാളം ബൈബിള് എല്ലാ ദിവസം കുഞ്ഞിനെ കൊണ്ട് മലയാളം ബൈബിൾ വായിപ്പിക്കുക നമ്മുടെ പള്ളിയില് കുർബാനക്ക് മലയാളത്തിലുള്ള കുർബാനകൾക്ക് പോകുക മലയാളം പുസ്തകം വായിക്കാൻ കൊടുക്കുക മലയാള ഭാഷയുടെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മുടെ മക്കളെ അനുദിനം പറഞ്ഞു കൊടുക്കുക എല്ലാ ദിവസവും മുടങ്ങാതെ രാവിലേയും വൈകുന്നേരവും കൂടാതെ അരമണിക്കൂർ സമയം ബൈബിൾ വായനക്കായി നീക്കി വെക്കുകയും അത് വായിച്ചിട്ട് അതില് മനസിലായ കാര്യങ്ങള് പ്രധാന പോയിൻറ്റ് കുട്ടികളെക്കൊണ്ട് വചനം എഴുതാനായിട്ട് ഒരു ബുക്ക് എടുത്ത് അതില് വചനം എഴുതിക്കുക അപ്പം കുട്ടികളത് എഴുതുന്നവരെ ഇത് കുട്ടികൾക്ക് എഴുതുന്ന വഴി കുട്ടികൾക്ക് ആ നമ്മളുടെ മലയാള ഭാഷ എന്താണെന്നും അതിൻ്റെ ആ മഹത്വം അത് മറന്നു പോകാതിരിക്കും അത് വീട്ടില് നമ്മള് മലയാളത്തില് നമ്മള് കളികള് കളിക്കാം അപ്പനും അമ്മയും മക്കളും കൂടി നല്ല ഗേമുകൾ കണ്ടുപിടിക്കാം കുറേ സമയം മലയാളത്തില് അങ്ങോട്ട് ഭാഷ ആശയവിനിമയം നടത്തുക നമ്മള് കൂട്ടുകാരെ വിളിക്കുമ്പം മലയാളത്തില് സംസാരിക്കുക അങ്ങനെ മലയാള ഭാഷയെ പ്രോത്സാഹിക്കാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ നമ്മളനുദിനം ചെയ്യുക നമ്മള് കൂടുതൽ നമ്മുടെ പേരൻസ്റ്റിനോടും നമ്മുടെ കുട്ടികളോടും വിദേശത്തുള്ളവരോടാണെങ്കിലും നമ്മുടെ ഭാഷയിൽ സംസാരിക്കുക നമ്മുടെ ഭാഷ നമ്മള് വിദേശത്ത് ജോലി കിട്ടി പോയാലും നമ്മള് നമ്മുടെ ഭാഷ മറക്കരുത് പെറ്റമ്മയെ നമ്മള് മറക്കരുത് ഭാഷയെ മലയാള ഭാഷയ്ക്ക് വേണ്ടി എന്ത് വില കൊടുത്തും നമ്മള് നമ്മുടെ ഭാഷയുടെ വില കഴിവതും നിലനിർത്തുക പഠിക്കാൻ മലയാളം പഠിക്കാൻ എഴുത്ത് ബുദ്ധിമുട്ടുള്ള കുട്ടികളെ നമ്മള് നല്ല രീതിയില് അവരെ വായന കാർഡ് കൊടുത്തും ചെറിയ ചെറിയ കഥകൾ കൊടുത്തും വായിപ്പിച്ചും പത്രങ്ങൾ വായിപ്പിച്ചും അവരെയും ഏതാണ്ട് എത്തിക്കാൻ നമുക്ക് സാധിക്കും ഒരിക്കൽ നമുക്ക് മലയാള ഭാഷയെ മറക്കാതിരിക്കാൻ നമ്മുടെ എല്ലാം മലയാള ഭാഷ ആയിരിക്കട്ടെ